ഹലോ അറേബ്യൻ റെസ്റ്റൊറൻ്റല്ലെ ഞാൻ ഷാജിയാണെ മിക്കപ്പൊഴും അവിടെ വരാറുള്ളതാ കണ്ടാല് മനസ്സിലാവും ഞാനവിടേ ഒരു മുപ്പത് പൊറോട്ടായും ഒരു ചില്ലി ചിക്കനും അൽഫാമ്മന്തീം ഓഡ്രെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോള് അതിന് ക്യാഷോൺഡെലിവെറിയില്ലെ അവിടെ ഞാൻ ക്യാഷോൺഡെലിവെറിയായിരുന്നെനിക്ക് താൽപ്പര്യം കാരണം എനിക്ക് ഞാനീ ഗൂഗിൾപ്പേയൊ ഓൺലൈൻ പേമെൻ്റൊ ഒന്നും ഉപയോഗിക്കുന്നയാളല്ല എനിക്കങ്ങനത്തെ യാതൊരു വശ വഴിയും നിശ്ചയമില്ല അതുകൊണ്ടിവടെ വരുമ്പോള് കാശ് കൊടുത്തുവിടാമായിരുന്നു ക്യാഷോൺഡെലിവെറിയായിട്ടൊന്ന് കൊടുത്തുവിടാമോ എനിക്കതൊന്നും വേറൊന്നുമറിയത്തില്ലാത്തതുകൊണ്ടാണ് വേറെ പേമെൻ്റോപ്ഷൻസൊന്നും അതൊന്നു കൊടുത്തുവിടാ എന്നെ അറിയാമല്ലോ നിങ്ങള്ക്ക് ഞാനെപ്പോഴും അവിടെ വന്നുകഴിക്കാറുള്ളതല്ലേ ഞാനും എൻ്റെ കുടുംബവുമെല്ലാം അപ്പോള് അതൊന്ന് കൊടുത്തുവിടാമ്പറ്റുവാണേലുപകാരമായിരുന്നു ഇവിടെ വന്ന് അപ്പോള്ത്തന്നെ കാശ് ഞാനിവിടക്ക പൈസയെടുത്ത് വെച്ചിട്ടുണ്ട് വരുമ്പോള്ത്തന്നെ കൊടുത്തുവിടാം അതൊന്ന് കൊടുത്തുവിട്ടുസഹായിക്കുവാണെങ്കില് ഉപകാരമായിരുന്നു ക്യാഷോൺഡെലിവെറിയില്ലെങ്കിൽപ്പിന്നെ എനിക്ക് സാധനം വേണ്ട എനിക്ക് അത് ഞാന് എൻ്റെ ഓഡര് ക്യാൻസല് ചെയ്തേരെ മുപ്പതു പൊറോട്ടായും ചില്ലി ചിക്കനും അൽഫാമ്മന്തിയും കൊടുത്തുവിടാൻ പറ്റുമെങ്കില് കൊടുത്തുവിടണം ഇപ്പോള്ത്തന്നെ കൊടുത്തുവിട്ടേര് ഞാൻ ഇവിടെ വരുമ്പോള് ക്യാഷ് കൊടുത്തുവിട്ടേക്കാം ആ ഞാൻ സ്ഥിരമായിട്ടവിടെ വരുന്നയാളാണല്ലൊ പിന്നെ നിങ്ങള്ക്കെന്നെ അറിയാമല്ലൊ കാന്നിങ്ങടെ ഭക്ഷണം നല്ലതായോണ്ടാണ് നമ്മളതുതന്നെ സെലക്റ്റ് ചെയ്യുന്നെ അവിടുന്നുതന്നെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നെ ആ എൻ്റെ മക്കള്ക്കും ഭാര്യക്കുമെല്ലാം നിങ്ങളുടെ ഭക്ഷണം വലിയ താൽപ്പര്യ നല്ലരുചിയുണ്ടെന്നാ പറയുന്നെ അതുകൊണ്ടാണ് നമ്മള് വേറൊരിടത്തും പറയാതെ നിങ്ങടടുത്തൂന്ന് വാങ്ങിക്കുന്നെ ക്യാഷ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ക്യാഷ് കിട്ടിയാല്പ്പോരെ നിങ്ങള്ക്ക് അത് ഒന്ന് കൊടുത്തുവിട് കേട്ടൊ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുക എത്രയും പെട്ടെന്ന് കൊടുത്തുവിട് ഇവിടെല്ലാ പിള്ളാരൊക്കെ നോക്കിയിരിക്കുകയാണ് നിങ്ങൾ തരുന്നില്ലെങ്കിൽ വേറെയെവിടുന്നെങ്കിലും വാങ്ങിക്കണം ക്യാഷോൺഡെലിവെറിയില്ലെങ്കിൽ അത് ഓഡര് ക്യാൻസല് ചെയ്തേര് ഓക്കെ